ഞാനല്ലാതെ എൻ്റെ ഹസ്ബൻ്റിൻ്റെ ഉപ്പാക്ക് പൂന്തോട്ടം പരിപാലനത്തിൽ വളരെ താല്പര്യമുള്ള ഒരാളാണ് അതുപോലെത്തന്നെ എൻ്റെ ഹസ്ബൻ്റിൻ്റെ അനിയനും അവർ ഒരു ഉപ്പായെന്ന് പറയുന്നത് ഒരു കൃഷിക്കാരനും കൂടിയാണ് അതുകൊണ്ടുതന്നെ പച്ചക്കറികളും അതുപോലെ പൂക്കളും നട്ടുവളർത്തുന്നതിൽ വളരെ ഇഷ്ടമുള്ള ഒരാളും അത് അതുപോലെ ചെയ്യാറും ഉണ്ട് നല്ല പരിപാലിച്ചു കൊണ്ടുപോകാറുണ്ട് അതുപോലെത്തന്നെ വീട്ടുമുറ്റം ഒരു പൂന്തോട്ടം പോലെ തന്നെയാണുള്ളത് നല്ലൊരു ഗാർഡൻ ഗാർഡനായി ഡെയ്ലി വെള്ളമൊഴിക്കുകയും അതുപോലെ ഉപ്പ എൻ്റെ ഹസ്ബൻ്റിൻ്റെ അനിയനും അതുപോലെ തന്നെ ബാംഗ്ലൂരിലെ സെറ്റിൽഡാണ് എങ്കിൽ പോലും ബാംഗ്ലൂരിൽ ഒരു ഫ്ലാറ്റിലാണെങ്കിൽ പോലും അവരുടെ ബാൽക്കണിയിൽ അവർ പിന്നെ പൂക്കളും അതുപോലെ കറ്റാർവാഴ അതുപോലെ കറിവേപ്പില പയർ അതൊക്കെ വളർത്തുന്നുണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ അവർക്ക് അവർക്ക് രണ്ടാൾക്കും ഒരുപോലെ പൂന്തോട്ടം പൂന്തോട്ടം അതുപോലെ പച്ചക്കറി നടുന്നതിലും താല്പര്യമുള്ള ആൾക്കാരാണ്